ഒളിമ്പിക്സ് പോലുള്ള വലിയ വലിയ മത്സരങ്ങൾ കായിക ഇനങ്ങളിൽ സ്വിമ്മിങ്ങിന് മഹത്തായൊരു വിഭാഗം തന്നാണ് സ്വിമ്മിങ്ങിനുമുള്ളത് എല്ലാ രാജ്യങ്ങളിലുള്ള എല്ലാവരും സ്വിമ്മിങിന് വരുന്നതാണ് എന്നാൽ ഇന്ത്യയിൽ വേണ്ടത്ര നീന്തൽക്കാരുണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നാണ് പറയുന്നത് എന്നാൽ നീന്തൽക്കാർക്ക് ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രാക്റ്റീസ് സെക്ഷൻസ് കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ന്യായമായിട്ടുള്ള കാര്യം ഗവൺമെൻറ്റിൻറ്റെ സൈഡിന്നാണ് ഫിനാൻഷ്യലിയൊരു സപ്പോർട്ട് വരാത്തതെന്നാണ് സ്പോർട്സിലേക്ക് വന്നവർ പിന്നെയും തിരിച്ച് പോകുന്നത് അങ്ങനൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഒരു സ്വിമ്മിങ് തലത്തിലേക്ക് ഒരു സ്പോർട്സ് ട്രാക്കിൽ സ്വിമ്മിങ്ങിലേക്ക് ഇറങ്ങുന്ന ആൾക്ക് ഒരു നാഷ്ണൽ സ്റ്റേറ്റ് ലെവലൊക്കെ കഴിയുന്ന ടൈമാകുന്നേരം പിന്നെ പുള്ളിക്ക് മുമ്പോട്ട് പോകാനുള്ള ഫിനാൻഷ്യലി സ്റ്റെയ്ബിൾ ഗവൺമെൻറ്റിൻറ്റെ സൈഡീന്ന് ഒരു സപ്പോട്ടില്ലാത്ത കാരണം പുള്ളി സ്കിപ്പിയാണ് വിടാണ് ഓയെനിക്കിത് എനിക്കെൻറ്റെ ഫാമിലി നോക്കാനുള്ള ഒരു സിറ്റ്വേഷനില്ല അതിന് ശേഷം സ്വിമ്മിങ്ങിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത് സ്വിമ്മിങ്ങിന് ഒരു ശൈലികളുണ്ട് നാല് തരം ശൈലികളാണുള്ളത് ഫ്രീ സ്റ്റൈൽ ബാക്ക് സ്ട്രോക്ക് ബ്രെസ്റ്റ് സ്ട്രോക്ക് ബട്ടർഫ്ലൈ ഇതിൽ ഫ്രീ സ്റ്റെയ്ല് ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഏയ്റ്റ് ഹൺഡ്രഡ് ഫോർ ഫോർ ഹൺഡ്രഡ് തൗസൻറ്റ് ഫൈ ഹൺഡ്രഡ് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ബാക്കി മൂന്ന് ഈവൻറ്റ്കളും ഫിഫ്റ്റി ഹൺഡ്രഡ് റ്റു ഹൺഡ്രഡ് ആണ് നടക്കുന്നത് സ്വിമ്മിങ് പ്രാചീന കാലങ്ങളിൽ സർവൈവൽന് വേണ്ടിയുള്ളതായിരുന്നെങ്കിലും വളർന്ന് വളർന്ന് സ്വിമ്മിങ്ങെന്ന് പറയുന്നത് ടെക്നിക്കലും സ്കില്ലും കൂട്ടിക്കൊണ്ട് കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള വലിയ ഒരു പാഠം തന്നെയാണത് ഒരു മാക്സിമം പ്രാക്റ്റീസ് ചെയ്ത് മെഡൽ മെഡൽന് വേണ്ടിത്തന്നെയാണ് സബ്ജില്ല തൊട്ട് കുട്ടികളെല്ലാവരും പരിശ്രമിക്കുന്നത് നീന്തൽക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാരിന് എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഒരു ഒരു ജില്ലക്കൊരു സ്വിമ്മിങ് പ്പൂളെണ്ണുള്ളൊരു പദ്ധതിയിൽ ഗവൺമെൻറ്റ് പേരിലൊരു ഫ്രീ പൂള് വരുമ്പോൾ തന്നെ കുട്ടികളതിലേക്ക് വരും ഒരു ഗവൺമെൻറ്റ് കോച്ചിനെ വെച്ചിട്ട് പൂള് പൂളിലേക്ക് കുട്ടികൾ ആവശ്യത്തിലധികം ഇപ്പം ഞങ്ങളുടെ കാര്യങ്ങളാണേൽ ഞങ്ങൾ പുഴയിലും ആറ്റിലും കുളങ്ങളിലും മാത്രം സ്വിം ചെയ്ത് നടന്നവരാണ് അതിന് ഞങ്ങൾക്ക് ലിമിറ്റേഷൻസൊണ്ട് നമ്മൾ കുളത്തിൽ സ്വിമ്മിങ് ചെയ്തിട്ട് നമ്മൾ പെട്ടന്ന് സ്വിമ്മിങ് പൂളിലേക്കിറങ്ങുക ആ വെള്ളമായിട്ട് നമ്മുടെ ബോഡി ഓക്കേ ആകാതുള്ള പ്രശ്നങ്ങൾ വരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റെ ചെയ്യേണ്ടതാണ് നമ്മൾ തരണം ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ എന്നാൽ സ്വിമ്മിങ് പൂളിൽ പ്രാക്റ്റീസ് ചെയ്ത് സ്വിമ്മിങ് പൂളിൽത്തന്നെ കോമ്പറ്റീഷനാവുന്ന വ്യക്തിയെ സംബന്ധിച്ച് പുള്ളിക്ക് അഡ്വാൻറ്റേജാണ് കാരണം അവന് പേടിക്കേണ്ട ഒന്നിനേക്കുറിച്ചും ചിന്തിക്കേണ്ട അവനെറങ്ങാ മെഡലടിക്ക്യാ പോവ്വാ അവനെ സംബന്ധിച്ച് അത്രമാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വരുന്ന പ്രശ്നങ്ങളിൽ ഏറ്റോം വലുതാണ് വെള്ളവുമായി സ്കിന്ന് ഓക്കെയാവാതിരിക്കാൻ മെഡിക്കലി നമ്മൾ നമ്മടൊരു മൈൻഡ്തന്നെ നമുക്ക് ഉള്ളിലിപ്പോൾ പേടി വരുമ്പോൾ ഓരോ ജില്ലയിൽ ഓരോ പൂളെന്നുള്ള ആശയം വരുമ്പോൾ തന്നെ അത് വലിയ ഒരു ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക് എറങ്ങാം അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്